ഹലോ ഇത് ജല അതോറിറ്റി അല്ലേ ഞങ്ങൾക്ക് ടോയിലെറ്റിലേക്കൊന്നും വെള്ളം കിട്ടുന്നില്ല അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ കുറേ ദിവസമായി ബില് പൈസയൊക്കെ ക്രെഡിറ്റ് അടിക്കും അവർ ബില്ലും തരും അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ വെള്ളം കിട്ടുകയില്ലേ കൃത്യമായിട്ട് അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾ അല്ലെ നിങ്ങൾ അത് കറക്റ്റായിട്ടൊക്കെ ചെയ്യണം കേൾക്കുന്നുണ്ടോ പറയുന്നത് പിള്ളേരുണ്ടോ ചെറിയ പിള്ളേർ അവർക്ക് സ്കൂളിൽ പോകണം പഠിക്കണം ബാത്റൂമിൽ പോകണം കുളിക്കണം തുണി അലക്കണം എന്തോരം പരിപാടികളാണ് ഈ കൊച്ചുങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടേണ്ടതല്ലെ അപ്പം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമോ മെയിൻ വിഷയം നമുക്ക് വെള്ളമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു അതിൻ്റെ പൈപ്പൊക്കെ ഒന്നു എവിടെ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നാക്കി വിട് തന്നിട്ട് ഞങ്ങളുടെ ഈ പൈപ്പിലേക്ക് കണക്റ്റ് ചെയ്തു വെള്ളം വരട്ടെ അപ്പം ടോയിലെറ്റിലേകൊക്കെ നല്ലോണം വെള്ളം വരും അത് ഭംഗിയായി പോട്ടെ പൈസ തനിയെ തന്നിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ പിന്നെ ഒന്നും പറയാതിരിക്കുന്നത് അവരോട് നിങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾ അടക്കുന്നില്ലേ എത്ര പൈസയാണ് അടയ്ക്കുന്നത് ഒറ്റ പ്രാവശ്യം പോലും വരുമ്പോൾ പൈസ അടയ്ക്കാണ്ട് ഇരുന്നിട്ടില്ല കറക്റ്റ് പൈസ കൊടുക്കും ആ ബില്ല് ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വേണ്ടേ അതല്ലെ അതിൻ്റെ ശരി എനിക്ക് കുഴപ്പം ഉണ്ടായിട്ടൊന്നുമല്ല അത് മര്യാദയ്ക്ക് ചോറ് ഉണ്ണണമെങ്കിൽ നമുക്ക് ഇച്ചിരെ വെള്ളം വേണ്ടേ അടുപ്പത്ത് വെള്ളം കലത്തിൽ അരിയിടമെങ്കിൽ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവക്കാൻ പറ്റുമോ വെള്ളം അല്ലേ നമുക്ക് മുഖ്യമായ ആവശ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ പറയുന്നില്ല എന്നു വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്